കർഷകർ മൃഗത്തിൻ്റെ മാലിന്യം ജൈവവളമായി തന്നെ ഉപയോഗിക്കുന്നവരാണ് മിക്കവരും അങ്ങനെ തന്നെ ചെയ്താണ് നമ്മൾ നാട്ടിൽ കണ്ടേക്കുന്നത് ഇപ്പം പശുവിൻ്റെ ആണെങ്കിൽ ചാണകം അത് അല്ലെങ്കിൽ ഗോ മൂത്രം ഇതൊക്കെ കലക്കി ഇത് ചെടിയിലേക്ക് ഒഴിക്കുക അല്ലെങ്കിൽ അത് കലക്കി എന്ത് ചെടിയാണോ അതിൻ്റെ ചുറ്റിനും ഒഴിക്കുക അല്ലേൽ ഇപ്പം കോഴി കോഴിയുണ്ടെങ്കിൽ കോഴി വളം ഇപ്പം കോഴി ഫാമീന്നക്കെ എല്ലാവരും പോയി കോഴി വളം വാങ്ങി എല്ലാത്തിനും ഇടാറുണ്ട് എല്ലാ വിളകൾക്കും അങ്ങനെ മൃഗങ്ങളുള്ള ഇതൊക്കെ നല്ലതാണ് ഇപ്പം അതിൻറ്റെയൊക്കെ ഇത് വളമായി തന്നെ മാലിന്യം ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് ഏറ്റോം അധികം നല്ലതെന്ന് നമ്മൾ ജൈവവളം ഉപയോഗിക്കുന്നത് തന്നെയാണ് എല്ലാ വിളകൾക്കും അല്ലേ പച്ചക്കറികൾക്കാണേലും എന്തിനാണേലും നല്ലത് നമ്മുടെ പ്രകൃതിക്കാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ മറ്റ് നമ്മുടെ ആരോഗ്യത്തിനാണേലും ഒക്കെ ജൈവവളമാണ് എന്തുകൊണ്ടും നമുക്ക് നല്ലത് മറ്റേ രാസവളത്തിന് നമുക്ക് ഉപയോഗവും അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാനും നമുക്ക് എല്ലാം നല്ലത് ജൈവവളം തന്നെയാണ് ഇപ്പം മിക്കവരും രാസവളത്തിനും കൂടുതൽ ജൈവവളത്തിലേക്കാണ് തിരിയുന്നത് ഈ വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ ചാണകം ഗോമൂത്രം അല്ലെങ്കിൽ ഇപ്പം ഇത് ഇപ്പം വെളുത്തുള്ളി കലക്കി ഒഴിക്കുക അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ച് കീടങ്ങൾക്കൊക്കെ ഒഴിക്കുക ചെടിയിലേക്ക് തളിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ പച്ചക്കറികൾക്ക് ഒക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ശരിക്കും നല്ല കാര്യവാണ് പിന്നെ ചെറിയൊരു കീടങ്ങളെ നിയന്ത്രിക്കാനും മറ്റൊരുപാട് കാര്യങ്ങൾക്ക് ഇത് നല്ലതാണ് പിന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ചാൽ രാസവളത്തിലും നമുക്ക് ശരീരത്തിനാണേലും ദോഷമില്ലാത്തത് ജൈവവളം തന്നെയാണ് ഈ ഇപ്പം പിന്നെ അത് ഉപയോഗിച്ച് നമ്മൾ നമുക്ക് അങ്ങനെ ദേഹത്ത് നമ്മുടെ ദേഹത്തും കാണാം പറ്റിയാലത് നമുക്ക് ദോഷമോ അല്ലെങ്കിൽ പൊള്ളലോ അങ്ങനത്തെ ഒന്നും പറ്റാറില്ല ഈ ജൈവവളം അതുകൊണ്ട് എന്തുകൊണ്ടും കൃഷിക്കും മറ്റെല്ലാത്തിനും ജൈവവളം തന്നെയാണ് നല്ലത്